കായിക വിനോദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ട് ചിലർക്ക് ക്രിക്കറ്റിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലർക്ക് ഫുട്ബോൾ ആയിരിക്കും ഇഷ്ടം ഹോക്കിയായിരിക്കും ഷട്ടിൽ ആയിരിക്കുമിഷ്ടം പണ്ടുകാലത്ത് ക്രിക്കറ്റ് ഫുട്ബോൾ ക്രിക്കറ്റിനായിരുന്നു പ്രാധാന്യം കൂടുതൽ ഓട്ടം ക്രിക്കറ്റ് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പം ഓട്ടം ഹൈ ജമ്പ് ലോങ്ങ് ജമ്പ് ചിലർക്ക് അതൊരു പാഷൻ ആയിരിക്കും അവരുടെ എല്ലാവർക്കും ഇപ്പം നമുക്ക് കുറെ മക്കളുടെന്ന് വച്ചോ ഒരു സ്കൂളില് ഒരുനാ പത്ത് ആയിരം പിള്ളേര് ഉണ്ടെങ്കിൽ ആയിരം പേർക്കും ഈ ഓടാനോ ക്രിക്കറ്റ് കളിക്കാനോ ഒന്നുമുള്ള കഴിവ് ഉണ്ടാവില്ല ചുരുക്കം കുറച്ചു പേര് ആ കഴിവിനെ നമ്മള് പിന്നെ വളർത്തിയെടുക്കേണ്ട കടമ നമുക്കാണ് അതിന് വേണ്ട പ്രാക്ടീസോ നിരന്തരം പ്രാക്ടീസ് ഉണ്ടെങ്കിലെ അവർക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാവുകയുള്ളു ലക്ഷ്യത്തിലേക്ക് കുതിച്ചുപായാൻ അവർക്ക് പറ്റുകയുള്ളു അപ്പം നമ്മൾ വേണ്ടത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക അവർക്ക് ഇപ്പം ക്രിക്കറ്റ് ക്രിക്കറ്റിനൊക്കെ സ്കൂളിൽ നിന്ന് കുട്ടികള് നന്നായി ക്രിക്കറ്റ് കളിക്കുന്നവരെയൊക്കെ ചേർത്ത് ഒരു പിന്നെ ഇത് അവർക്ക് അത് കണ്ടിന്യൂസ് ആയിട്ടവർക്ക് പ്രാക്ടീസ് കൊടുക്കണം എന്നാലും നമുക്ക് ഈ ധോണിനെ പോലെയും സച്ചിനെ പോലെയൊക്കെയുള്ള ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളു അതേപോലെ ഫുട്ബോള് റൊണാൾഡോ പിന്നെ മെസ്സി അങ്ങനെയുള്ളവരൊക്കെ ആക്കണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് വേണം അപ്പം നമ്മുടെ ഇന്ത്യയിൽ അത് സ്കൂളുകളിലൊക്കെ ചില സ്കൂളുകളിലൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുപോരാ നമ്മുടെ പഠനത്തിനോടൊപ്പം തന്നെ കായികവും വി കായിക വിനോദവും ഉൾക്കൊള്ളിച്ച് വേണം പഠനരീതി മുന്നോട്ട് പോകാൻ എന്നുള്ള നമ്മള് അങ്ങനെയൊരു പ്രോത്സാഹനം നൽകണം